പിടിയും കോഴിയും ഉണ്ടോ അവിടെ ആ പിടിയും കോഴിയും ഒരു പരിപാടി ഉണ്ട് നമ്മളെ വീട്ടിൽ അപ്പം അതിന് വേണ്ടീട്ട് തലേ ദിവസത്തേക്ക് വേണ്ടീട്ടാണ് ഒരു നൂറ്റി അമ്പത് പേരുണ്ടാവും എണ്ണൂറ്റി അറുപത് നല്ല ഭക്ഷണം നല്ലതായിരിക്കണം പിടിയും കോഴിയും പറഞ്ഞിട്ട് ആ ഓഹ് ആ ആ ഉണ്ടാക്കി ആ ഉണ്ടാക്കി രാത്രിയത്തേക്ക് ചൂടോടെ വേണേ ആഹ് ആറി തണുത്തുപോയാൽ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ തരണം ആ അതിൻ്റെ കൂടെ കുറച്ച് വേറെന്തെങ്കിലും രാത്രി എട്ട് മണിയാകുമ്പോൾ കൊടുക്കണം അടുത്താഴ്ച അല്ല പിറന്നാളല്ല കല്യാണത്തിൻ്റെ തലേദിവസം ആണ് കല്യാണം അടുത്താഴ്ച്ച അടുത്ത ശനിയാഴ്ച്ച കൊണ്ടുവരണം ആ ഉണ്ടെങ്കിലൊരു പത്താള് വന്നോട്ടെ ആ അതും വേണം എല്ലാം എല്ലാം കുറച്ച് തരണം വല്യ പൈസയൊന്നും പറയരുത് ആ എല്ലാം കൂടി ഒരു ആ ഒരു വല്യ പാവങ്ങളാ പൈസക്കാരൊന്നും അല്ല

ബിരിയാണി ഞാൻ വേണമെങ്കിൽ വിളിക്കാം പിന്ന കല്യാണത്തിന്റെയന്നുള്ള ഓർഡറും നിങ്ങൾക്കുതന്നെ തരാം ആ കേക്ക് ആ കേക്കും മുറിക്കണം കല്യാണത്തിന്റെയന്ന്

ആ എല്ലാം വേണം പിടിയും കോഴിയും വേണം മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് മതി കേക്ക് അതൊരു പത്ത് കിലോ പത്ത് കിലോ ആ ആ ആ എന്നാൽ ആ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാ സദ്യ വേണ്ട എല്ലാം വേണം അതിന്റെ കൂടെ ഇല്ല എല്ലാം വേണം പച്ചക്കറി ഐറ്റംസും വേണം ആ ആ ചെറിയത് അഞ്ച് റുപ്യേൻ്റെ മത്ഇ കേട്ടോ

ആ ആ എന്നാൽ അതൊരു മുന്നൂറെണ്ണം ആ എന്നാൽ ആളൊന്നും വന്നിട്ടില്ല ആ അല്ല ഇന്നിനി നമ്മൾ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ മറ്റോ കലക്കിക്കോളും ആ വേണ്ട അതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തോളാം ഓ ഓ ആ എല്ലാം വേണം അതല്ല അടുത്ത ഞായറാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മറവിയാണെങ്കിൽ എങ്ങനെ എത്തും എന്നാ ശരി ശരി ചെയ്ത് തരണം പിന്നെ പന്തലൊക്ക നേരത്തേ ഇടണം ആ ബുധനാഴ്ച വരണം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എല്ലാം കൊണ്ടുവന്നാൽ മതി അതെ